ഇപ്പോൾ കോഴിക്കോടിൽ നമ്മുടെ ആരോഗ്യ സംരക്ഷണം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നൊരു ജില്ലയാണ് കാരണം ഇവിടെ ഇഷ്ടംപോലെ ഹോസ്പിറ്റലുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഇവിടെ ഇപ്പോൾ പ്രൈവറ്റ് ആണെങ്കിൽ ബേബി മെമ്മോറിയൽ പിന്നേ മിംസ് അങ്ങനത്തെ ഹോസ്പിറ്റലുകളും കാര്യങ്ങളൊക്കേ ഉണ്ട് അപ്പോൾ അവിടെയൊക്കേ നല്ല രീതീലുള്ളൊരു എക്യുപ്മെൻ്സും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് നമ്മുടെ ആരോഗ്യ സംരക്ഷണം എന്നു പറഞ്ഞ് കഴിഞ്ഞാൽ നല്ല രീതിയിൽ മുന്നോട്ട് പോവും കാരണം എന്നു കഴിഞ്ഞാൽ ഇപ്പോൾ എന്തെങ്കിലും ഒരു ആക്സിഡൻ്റ് കേസൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് തന്നെ അവരെ റിക്കവർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ടൊക്കെ സാധിക്കുന്നതാണ് അപ്പോൾ ഇപ്പോൾ മരണത്തിൽ നിന്ന് തന്നെ ചിലവർ രക്ഷപ്പെടാനും കാര്യങ്ങളൊക്കേ അതിനകത്തുണ്ട് വെൻറ്റിലേറ്റർ സൗകര്യം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മുടെ ഹോസ്പിറ്റലുകളിലൊക്കെ ഉണ്ട് പിന്നെ സർക്കാർ ഹോസ്പിറ്റൽ ഇഷ്ടംപോലെയുണ്ട് നമ്മൾക്ക് ഗവെണ്മെൻ്റ് മെഡിക്കൽ കോളേജും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇവിടെ തന്നെയാണ് വരുന്നത് പിന്നെ നല്ല രീതിയിലുള്ള ശുചിത്വവും കാര്യങ്ങളൊക്കെ നല്ലോണം ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്കത് ആരോഗ്യ സംരക്ഷണം നല്ല രീതിയിൽ കൊണ്ടുപോവാൻ വേണ്ടി പറ്റുള്ളൂ ഈ ആശുപത്രികൾ മാത്രം ഉണ്ടായത് കൊണ്ട് കാര്യമില്ല ആശുപത്രിയുടെ പരിസരവും എല്ലാ കാര്യങ്ങളും നല്ല രീതിയിൽ വൃത്തിയാക്കിയെങ്കിൽ മാത്രമേ നമുക്ക് ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോവാൻ പറ്റുള്ളൂ അതു മാത്രം ശ്രദ്ധിച്ചാൽ മതി